സിനിമാന്ന് പറയുന്നത് മെയിനായിട്ടും ഒരു എൻറ്റർടൈമെൻറ്റാണ് ഉദ്ധേശിക്കുന്നത് നമ്മുടെ ലൈഫിലിങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മളെന്താണ് ഈ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിൽ നിന്നും വിട്ട് മാറി കുറച്ച് ടൈമ് ഫ്രീയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മള് സിനിമ കാണുന്നത് അപ്പോൾ എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്ന എനിക്കിങ്ങനെ ഇഷ്ടപ്പെടുന്ന മൂവീസ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ ഫണ്ണായിട്ടുള്ളത് തമാശയായിട്ടുള്ളത് കുറെ ചിരിക്കാനുള്ള മൂവീസാണ് എനിക്ക് പൊതുവെ ഇഷ്ടം ഇപ്പത്തെ മൂവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും കൂടെ ഒരു ഒരു കുറച്ചും കൂടെ ബാക്കിലേക്ക് വരുമ്പം വെട്ടം പോലുള്ള കുറെ ചിരിക്കാനുള്ള മൂവീസ് കുറെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളിൽ ചിരിക്കാനുള്ള മൂവീസ് അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്കിഷ്ടം ഇപ്പം പൊതുവെ ഇങ്ങനെ കുറെ ചിരിക്കാനുള്ള മൂവീസ് അതേപോലെ തന്നെ റിയൽ ലൈഫായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂവീസ് എനിക്കിഷ്ടമാണ്

ഇപ്പം മൂവ് സിനിമായെന്ന് പറയുമ്പം നമ്മള് മെയിനായിട്ടും കുറച്ച് നേരം ഇങ്ങനെ ചിരിക്കാനും കുറെ എന്താണ് നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മളെങ്ങനെയാണോ നമ്മള് ഫ്രീ ടൈമായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മള് ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സിനിമയുടെ കഥ എനിക്കിഷ്ടമാകാൻ കാരണമെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മള് നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ച് ഫ്രീ ടൈം ഉദ്ധേശിക്കുന്നു ആ ടൈമ് മാക്സിമം എൻജോയ് ചെയ്യുക എന്ന ഒരിതിൽ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക കോ കുറെ ചിരിക്കാനുള്ള മൂവീസ് അതേപോലെ തന്നെ തമാശ മാത്രമല്ല കുറച്ച് ചിന്തിക്കുകയും വേണം കുറച്ച് കുറച്ച് നമ്മുടെ ലൈഫുമായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു മൂവീസാണെനിക്കിഷ്ടം അപ്പോൾ ചിരിക്കല് മാത്രവല്ല കുറച്ച് തമാശ് ശ വേണം അതിനോടൊപ്പം തന്നെ കുറച്ച് ചിന്തിക്കലും ആവശ്യമുള്ള മൂവീസ് തന്നെയാണ് അതേപോലെ തന്നെ കുറെ ത്രില്ലിംഗ് ഹൊറർ മൂവീസ് അതിനോടൊക്കെ കുറച്ച് ഇഷ്ട്ടമുള്ള ആള് തന്നെയാണ് ഞാൻ